ഇന്ത്യയിലെ തന്നെ ഏറ്റും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഓണം പിന്നെ ഓണം കഴിഞ്ഞ് വിഷു ക്രിസ്മസ് പിന്നേ ദീപാവലി എന്നാലും നമ്മൾ കൂടുതലായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നു പറയുന്നത് ഓണമാണ് ഓണം എല്ലാ മലയാളികളും അതായത് ഏത് ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാരും ആഘോഷിക്കുന്നത് ഓണമാണ് ഓണം എന്നു പറയുമ്പോൾ അത്തം പത്തിന് തിരുവോണം എന്നു പറയുന്നത് അപ്പം ഒന്നാം ദിവസം തൊട്ട് നമ്മൾ പത്തു ദിവസം വരെ ഓരോ കളറിലും പൂക്കളോ ചെടി എന്തെങ്കിലും ഉപയോഗിച്ച് അത്തപ്പൂവിടും പത്താമത്തെ ദിവസം പത്ത് നിറങ്ങളും കൊണ്ടുള്ള അത്തപ്പൂവായിരിക്കും ഇടുന്നത് പിന്നെ ഓണത്തിൻ്റെ രാവിലെ തന്നെ അമ്പലങ്ങളിലൊക്കെ എല്ലാ ആൾക്കാരും പോകും ഹിന്ദുക്കൾ പൊതുവെ നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അങ്ങനെ പോകും പിന്നെ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കും ആ നേരം പിന്നേ മാവേലി മഹാബലി നമ്മളെ കാണാൻ വരും എന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെ വേഷംകെട്ടും ആൾക്കാർ ലൗ കുടവയറൊക്കെയായിട്ട് പിന്നെ ഉച്ചക്ക് ശേഷം ഒരുപാട് കളികളൊക്കെ കളിക്കും തുമ്പി തുള്ളലും പുലികളിയും അങ്ങനെ ഒരുപാട് കളികൾ കളിക്കും പിന്നെ ഉത്രാടം തിരുവോണം അവിട്ടം ചതയം എന്നിങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ തിരുവോണമാണ് ആഘോഷിക്കുന്നത് ബാക്കിയോണങ്ങൾ ആഘോഷിക്കത്തില്ലെന്നല്ല കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ തിരുവോണമാണ് പിന്നെ അതുപോലെ വിഷു വിഷുവിന് കൃഷ്ണൻ്റെ ആണല്ലോ വിഷു അപ്പം രാവിലെ നമ്മൾ കണിയൊരുക്കും ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ കണിവെള്ളരി വിഷു വിഷുക്കണിക്ക് മെ യഥാർത്ഥ പ്രധാനം എന്നു പറയുന്നത് അത് നമ്മുടെ കണിക്കൊന്ന തന്നെയാണ് പിന്നെ രാവിലെ കണികാണാനായിട്ട് നമ്മൾ ഒരുക്കുന്നതാണ് ബാക്കിയുള്ളവരെ കണ്ണടപ്പിച്ച് കൊണ്ടുവന്ന് കൃഷ്ണൻ്റെ മുന്നിൽ കാണിച്ച് കണ്ണു തുറന്ന് പ്രാർത്ഥിക്കും വിഷുകൈനീട്ടം കിട്ടും വിഷു അടയുണ്ടാക്കും വിഷുവിനിതു പോലെതന്നെ സദ്യയൊക്കെ ഉണ്ടാക്കും പിന്നെ അമ്പലത്തിലൊക്കെ പോകും പിന്നെ ക്രിസ്മസ് എന്നു പറയുമ്പോൾ കൂടുതലായിട്ടും ക്രിസ്ത്യൻ ആൾക്കാരാണ് ആഘോഷിക്കുന്നത് അവർക്ക് നൊയമ്പും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ അതുപോലെ നമ്മൾ നക്ഷത്രം വാങ്ങും വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കും കടകളിൽ തൂക്കും പല കളറിൽ ഉള്ള പിന്നെ കേക്ക് വാങ്ങും കേക്ക് മുറിക്കും പിന്നെ നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കും കൂടുതലും നോൺ വെജ് ഐറ്റംസ് ആയിരിക്കും ഉണ്ടാക്കുന്നത് പിന്നെ വൈകിയിട്ടൊക്കെ ഇഷ്ടംപോലെ പടക്കങ്ങൾ ഒക്കെ വാങ്ങിച്ച് പൊട്ടിക്കും അങ്ങനെ നമ്മൾ ക്രിസ്മസ് പാപ്പാ ഒരുങ്ങും കരോൾക്കാരൊക്കെ വരും അങ്ങനെ നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കും അതുപോലെ ആ അതുപോലെ നമ്മൾ പിന്നെ എന്താണ് ദീപാവലി ദീപാവലി ദീപങ്ങളുടെ ഇതാന്ന പറയുന്നത് അപ്പോൾ ഇഷ്ടംപോലെ തമിഴ്നാട്ടിലൊക്കെയാണ് ഇഷ്ടംപോലെ സ്വീറ്റ്സും കാര്യങ്ങളുണ്ട് നമ്മുടെ ഇവിടെയും ഉണ്ട് പിന്നെ അങ്ങനെ കിട്ടും കുറെ മൺചിരാതിലെ വിളക്കൊക്കെ കത്തി മൺചിരാതിൽ ദീപമൊക്കെ കത്തിക്കും പിന്നെ പടക്കം പൊട്ടിക്കും മെയിനായിട്ട് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തഞ്ചിനും വിഷു ഏപ്രിൽ പതിനഞ്ചിനുമാണ് നമ്മൾ ആഘോഷിക്കുന്നത് ബാക്കി ഉത്സവങ്ങൾ പല തവണയും പല ഡേറ്റുകളിലാണ് അതായത് ഈ ഉത്സവങ്ങളെല്ലാം നമ്മൾ പ്രധാനമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ പി നമ്മൾ ബന്ധുക്കളുടെ വീടുകളിൽ പോകുന്നതും അതൊക്കെ ഈ ഉത്സവങ്ങളുടെ ഇടയിൽ തന്നെയാണ് എല്ലാവരുടെ കുടുംബക്കാരെല്ലാരും കൂടി ഒത്തു ചേർന്ന് സന്തോഷകരമായിട്ട് ഈ ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കും ആഹാരം പാകം ചെയ്ത കഴിക്കും എല്ലാം നല്ലൊരു നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണിത്